ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് ഹെഡ് ഫോണ് ഞാൻ കുറെ കാലമായി ആഗ്രഹിക്കുന്നു ഒരു ഹെഡ് ഫോൺ പക്ഷെ നല്ല ഹെഡ് ഫോൺ വിലകുറവാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്വാളിറ്റി എനിക്ക് ഉപയോഗിച്ചെല് ഇഷടായി നല്ല കളർ നല്ല പാക്കിങ് ആയിരുന്നു നല്ലൊരു ഹെഡ്ഫോൺ എനിക്ക് ഭയങ്കര ഇഷ്ടയായി ഞാന് ഉദ്ദേശിച്ചത് പോലൊരു ഹെഡ്ഫോൺ നല്ലൊരു റേഞ്ച് വളരെ കുറവ് ആണ് അതിൻ്റെ വില ഭയങ്കര കുറവായിരുന്നു പക്ഷെ നല്ല ഞാൻ വെച്ചു ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ ആയിരിക്കുമെന്ന് പക്ഷെ നല്ല ഹെഡ് ഫോൺ എനിക്ക് ഭയങ്കര ഇഷ്ടമായി